ഹലോ ആ ഹലോ ഓക്കെ ഇത് റെസ്റ്റോറന്റ് അല്ലേ ഹലോ ഓക്കെ ഇത് ആ അതെ ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നതേ എനിക്ക് അവിടെ എന്തൊക്കെയാണ് ഫുഡ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു രണ്ടും നോക്കുന്നുണ്ട് നമുക്ക് എല്ലാം എല്ലാ ടൈപ്പ് ഓഫ് മീൽസും വേണം അതായത് വെജിറ്റേറിയൻ വേണം വെജിറ്റേറിയൻ വേണം ആ അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയനിൽ ഫിഷ് ആ ചിക്കൻ അതേപോലെ തന്നെ മീറ്റ് എല്ലാം വേണ്ടതൊക്കെ അപ്പോൾ എങ്ങനെയാണതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു

ആ ഹാ ആ ഓക്കെ അല്ല ഇപ്പം നമ്മളിപ്പം ആ നിങ്ങൾ പറഞ്ഞല്ലോ വെജിറ്റേറിയൻ ഫുഡ് സദ്യ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പം ആ പറയുന്നത് വരെ എങ്ങനെയാണ് അത് സെറ്റ് ആയിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ഓരോ ഡിഷും സെപ്പറേറ്റ് ആയിട്ടാണോ വരുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം കഴിക്കാനുള്ള ഏരിയ എടുക്കേണ്ടി വരും അല്ലേ ആ അപ്പം പിന്നെ നമുക്ക് അതിനുള്ളൊരു അത് പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പം നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര പേർ ഉണ്ടെന്നുള്ള കാര്യം ഒക്കെ അറിയേണ്ടേ ആ ഓക്കെ ഓക്കെ അപ്പം വെജിറ്റേറിയൻ ഫുഡ് ഓക്കെ ആയി പിന്നെ നോൺ വെജിറ്റേറിയൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ബിരിയാണി ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെ ഉള്ളത് ആ ഓക്കെ ഓക്കെ ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് മീറ്റിനാണോ നമ്മൾ കുറച്ചുകൂടെ കംപാരിറ്റീവ്ലി നല്ലത് അല്ലെങ്കിൽ ചിക്കൻ എടുക്കുന്നതാണോ കുറച്ചുകൂടെ നല്ലത് ഇതിപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൽ നമുക്ക് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ള ലിസ്റ്റേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൽ ഈ നോൺ വെജിറ്റേറിയനിൽ എത്ര പേർ മീറ്റ്സ് ആണെങ്കിൽ ബീഫും മട്ടനും ആണല്ലോ മെയിൻ ആയിട്ട് വരുന്നത് അപ്പം അദ്യമായിട്ട് എങ്ങനെയാണ് അത് കഴിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എടുക്കില്ലേ സോ നമ്മൾ ചിക്കൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഒരു ഹൺഡ്രഡിൽ ഓക്കെ ഇല്ല അതായത് നമുക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ഹൺഡ്രഡ് മീൽസ് ആണ് മൊത്തത്തിൽ വേണ്ടത് അതിലൊരു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആണ് നമുക്ക് വെജിറ്റേറിയൻ ഉള്ളത് ബാക്കിയുള്ള സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് നോൺ വെജിറ്റേറിയൻ ആണ് ഓക്കെ അപ്പം ആ അപ്പം ആ ശേഷം ഉള്ളൂ നിങ്ങൾ ആൾ ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ അല്ലാതെ ഇത്ര കെ ജി അങ്ങനെ ഒന്നും അല്ലല്ലോ ആ ഓക്കെ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് ഓരോ മീലിൻ്റെ കാര്യങ്ങൾ ആല്ലേ ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഒന്ന് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ താങ്ക് യൂ